ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ വിവാഹങ്ങൾ പഴയകാലത്ത് ബ്രോക്കർമാർ പോയി അവിടെ പെണ്ണിൻ്റെ വീട്ടിലും ചെറുക്കൻ്റെ വീട്ടിലും അന്വേഷിച്ച് അവർ അവിടെ ഇന്ന ഒരു പെണ്ണുണ്ട് ഇത്ര വയസ്സുണ്ട് ഇന്ന വിദ്യാഭ്യാസമുണ്ട് ഇത്ര രൂപ സ്ത്രീധനം കൊടുക്കും അന്നത്തെ കാലത്ത് ഇന്ന് അങ്ങനെയൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഇതെല്ലാം അടിസ്ഥാനം സ്ത്രീധനം നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഇപ്പോഴും നടക്കുന്നൊരു കാര്യമാണ് അങ്ങനെയായിരുന്നു പഴയ കാലങ്ങൾ ഉള്ള വിവാഹങ്ങൾ അതിൽ ആ ചെറുക്കൻ പോയി പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണ് കാണും പെണ്ണും ചെറുക്കനുമായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുക സംസാരം കുറച്ചുനേരം സംസാരിക്കുക അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ച് ഇഷ്ടപ്പെട്ടൂന്ന് പറയും പിന്നെ പെണ്ണിൻ്റെ വീട്ടീന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കുറെ ആൾക്കാർ വരും അവർ വന്ന് ചെറുക്കൻ്റെ വീട് വീട്ടുകാരുമായിട്ട് സംസാരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചുറ്റുപാടും എല്ലാം ഇഷ്ടപെട്ടാൽ പിന്നെ വിവാഹം ഉറപ്പിക്കാൻ അത് അങ്ങ് വീണ്ടും ആണ് ആണുങ്ങൾ കുറച്ച് ആണ് ആണിൻ്റെ ചെറുക്കൻ്റെ വീട്ടീന്ന് വീണ്ടും കുറെ ആൾക്കാർ പോവും പിന്നെ അതുകൂടാതെ മറ്റുള്ള ബൈ സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഈ പെണ്ണിനെ പറ്റിയോ ചെറുക്കനെ പറ്റിയോ ഒക്കെ അന്വേഷിക്കും അങ്ങനെ ആയിരുന്നു അന്നത്തെ കാലം പഴയകാലത്തെ വിവാഹം ഇന്ന് പക്ഷേ അത് മാറി ഇപ്പം കൂടുതലും അന്നും കുറച്ചൊക്കെ ആൾക്കാർ അങ്ങോട്ടുമിങ്ങോട്ടും സ്വന്തമായി കണ്ടുപിടിച്ച് വിവാഹം സ്നേഹിച്ചു കല്യാണം കഴിക്കുന്നവരുണ്ട് ഒന്നും രണ്ട് വർഷം സ്നേഹം കണ്ടു അങ്ങനെ വിവാഹം കഴിക്കുന്നവരുണ്ട് ഇന്നും ഇന്ന് അതിൽ ഒത്തിരി കൂടി ഇപ്പോൾ കല്യാണം നമ്മൾ ഉറപ്പിച്ചെന്ന് പറഞ്ഞാലും അവർ തമ്മിൽ കണ്ട് ആറുമാസമൊക്കെ സംസാരിച്ച് ഇല്ലേ ഒരു വർഷമൊക്കെ സംസാരിച്ച് അവർ യോജിപ്പായാൽ മാത്രം ഇന്നത്തെ കുട്ടികൾ വിവാഹം കൂടുതലും അവർ സ്വന്തമായി കണ്ടുപിടിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഒരു വിവാഹം കുട്ടികളോട് ആദ്യമേ ചോദിക്കണം ആരേലും കണ്ടുവച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ അന്വേഷിക്കുക അപ്പം മാട്രിമോണിയിൽ ഇട്ട് ഇടുവോ ഇല്ലെങ്കിൽ അറിയാവുന്ന അവർ തമ്മിലാണേൽ അങ്ങോട്ടുമിങ്ങോട്ടും പോയി കണ്ട് സംസാരിക്കും അന്നത്തേം ഇന്നത്തേം ആയിട്ട് സിസ്റ്റത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ചെറുക്കൻ ആദ്യം പോയി പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണിനെ കാണും ഇപ്പം പിന്നെ വിവാഹം പെണ്ണ് വന്ന് ചെറുക്കൻ്റെ വീടും കാണുന്നുണ്ട് പെണ്ണിനും പെണ്ണും ചെറുക്കനും കൂടെ ആണ് എന്താ വിവാഹത്തിൻ്റെ തലേ ദിവസം മധുരം വെപ്പെന്നുള്ള ഒരു പരിപാടിയുണ്ട് അതിനകത്ത് ചെറുക്കനും പെണ്ണും കാണും അങ്ങനെയാണ് ഇന്നത്തെ വിവാഹം ഇന്നത്തെ വിവാഹത്തിന് ആർഭാടങ്ങൾ ഒരുപാടാണ് അത് അത്ര നല്ല ഒരു കേസൊന്നുമല്ല പഴയത് പഴയ കാലത്ത് ഉള്ള വിവാഹങ്ങളാണ് നല്ലത് വിവാഹ സദ്യ ആണെങ്കിലും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ കൂടി വിവാഹസദ്യ ഒരുക്കി പന്തലുമൊക്കെയിട്ട് സ്വന്തമായിട്ട് പന്തലുമൊക്കെയിട്ടാണ് പഴയ കാലങ്ങളിൽ ചെയ്തിരുന്നത് ഇന്ന് പക്ഷേ അതെല്ലാം കുറെ ഏജൻസികളെ ഏൽപ്പിച്ച് അവരാണ് എല്ലാ കാര്യങ്ങളും ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് എന്ന് വേണ്ട എന്ത് കാര്യോം അവർ തന്നെ തീരുമാനിച്ചങ്ങ് ചെയ്യുകയാണ് ഇന്നത്തെ കാലത്തെ വിവാഹം പക്ഷേ പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല നല്ല നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ ആലോചിച്ച് ഭക്ഷണം ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരാണ് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പഴയ ബന്ധങ്ങൾക്കൊരു ദൃഢതയുണ്ടായിരുന്നു പഴയ വിവാഹം ത്തിന് ഒരു ദൃഢത ഉണ്ടായിരുന്നു ഇന്ന് അത്രേം ഉണ്ടാകൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ല നല്ല ഇപ്പോഴത്തേം പുതിയ കുട്ടികളുടെ വിവാഹോം കുറെ സാമ്പത്തിക ചിലവുണ്ടെന്നേ ഉള്ളു മാതാപിതാക്കൾക്ക് അവർക്ക് അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല മറ്റ് ഒന്നും പറയാനില്ല